ഞാൻ വാങ്ങിയ ഫോണിന് ഒട്ടും ക്വാളിറ്റി ഇല്ലായിരുന്നു അയിനൊട്ടും സ്പീഡില്ലായിരുന്നു അതേ പോലെ സ്റ്റോറേജ് വളരെ കമ്മി ആയിരുന്നു അതേ പോലെ ഡിസ്പ്ലേ സെയ്സും വളരെ കമ്മി ആയിരുന്നു ക്യാമറ ക്വാളിറ്റി ഇല്ലായിരുന്നു അതിനു നല്ലൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുപോലെ അതിന്റെ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ഫ്ളക്സ്ബിലിറ്റിയും ഒട്ടും പോരായിരുന്നു അത് ഉപയോഗിക്കാൻ തന്നെ വളരെ കഷ്ടമാണ് അതുപോലെതന്നെ അത് താഴെ വീണാൽ പെട്ടെന്ന് അതിന്റെ ഡിസ്പ്ലേ പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരുന്നു അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഉപയോഗിക്കാൻ പെട്ടെന്ന് കേടു വരാൻ സാധ്യത അതിനുണ്ട് സോ ക്വാളിറ്റി വൈസ് ഒട്ടും പോര